എനിക്ക് അടുത്തുള്ള പട്ടണങ്ങളും ഗ്രാമങ്ങളും പലപ്പോഴും സന്ദർശിക്കേണ്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് എനിക്ക് സ്വന്തമായുള്ള ഒരു പ്രിൻറ്റിങ് പ്രസ്സിൽനിന്നും അച്ചടിക്കുന്ന വിവിധ പ്രോഡക്സ് പല സംസ്ഥാന പല ജില്ലകളിലേക്കും കൈമാറ്റം ചെയ്തു എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്ത്വമുണ്ട് അതായത് കേരള സർക്കാരിൻ്റെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ടുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എ ഐ ക്യാമറയിൽ എടുക്കുന്ന ചിത്രങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുന്നതിനുവേണ്ടിയുള്ള വിൻഡോ കവർ സപ്ലൈ ചെയ്യുന്നത് ഞങ്ങളുടെ സ്ഥാപനമാണ് അതുകൊണ്ട് എല്ലാമാസവും കൊല്ലം പത്തനംതിട്ട മാവേലിക്കര ആലപ്പുഴ എറണാകുളം എന്നീ ഭാഗങ്ങളിലേ ഞാൻ നേരിട്ട് സന്ദർശിച്ച് ഈ സാധനങ്ങൾ അവിടെ ഡെലിവറി ചെയ്തത് കൊടുക്കുകയും അതേസമയം എറണാകുളത്തിന് അപ്പുറത്തുള്ള ഭാഗത്തേക്കു മറ്റും ആളെ അവിടെ ചുമതലപ്പെടുത്തി അവരു വഴിക്കാണ് കൊടുക്കുന്നത് ഞാൻ നേരിട്ട് സന്ദർശിക്കാറുള്ളത് കൊല്ലം മ പത്തനംതിട്ട കോട്ടയം തിരുവല്ല തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് ഈ ആവശ്യത്തിനു പോകുന്നത് അതല്ലാതെ കോഴി വളർത്തൽ ഉള്ളതുകൊണ്ട് കോഴികളുടെ ആവശ്യങ്ങൾ നോക്കുന്നതിനു വേണ്ടിയിട്ട് തീറ്റയും മറ്റു കാര്യങ്ങളും എടുക്കുന്നതിനും അതിൻ്റെ ചില ചെറിയ ക്ലാസ്സുകളും മറ്റുമൊക്കെ അറ്റൻ്റ് ചെയ്യുന്നതിനും കൊല്ലം കൊട്ടാരക്കര ഭാഗത്തൊക്കെ യാത്ര പോകുന്നത് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്